ഇരുപത് രണ്ട് രണ്ടായിരത്തി എട്ട് പത്തൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പതിനാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി നാല്